നമ്മുടെ സംസ്ഥാനത്ത് ആദരിക്കപ്പെടുന്ന മത നേതാക്കന്മാരുമുണ്ട് അല്ലാത്ത വ്യക്തികളുമുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ട്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ കേരത്തിലെ മെട്രോ മാൻ എന്ന് അറിയപ്പെടുന്ന ഇ ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ തന്നെ കണ്ട ഒരു ഏറ്റവും നല്ല കഴിവുള്ള ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അദ്ദേഹം വളരെ ചിട്ടയായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരു വ്യക്തിയാണ് തീരെ അഴിമതിയില്ല അദ്ദേഹം ചെയ്യുന്ന ജോലി അദ്ദേഹം ഒരു കൈക്കൂലിയോ അല്ലെങ്കിൽ പിന്നെ ഒരു വിട്ട് വീഴ്ചയും ഇല്ലാണ്ട് ക്വാളിറ്റിയിൽ ഒരു വിട്ട് വീഴ്ചയില്ലാണ്ട് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം അത്രയും എന്താണ് റെസ്പോൺസിബിലിറ്റി കൂടെയാണ് മൂപ്പർ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിനെയാണ് എനിക്ക് ഈ ഒരു അവസത്തിൽ ഓർമ്മ വരുന്നത് നമ്മുടെ മെട്രോ മാൻ ഇ ശ്രീധരൻ